എന്റെ പ്രദേശത്തെ പ്രധാനമായുള്ള മൂന്ന് സ്കൂളുകളാണ് ഒന്ന് സി എം ഡി വിഎച്ച്എസ് മാത്തൂർ എയുപിഎസ് ചെങ്ങന്നൂർ സരിഗ പബ്ലിക് സ്കൂൾ ആലക്കോട് ഇവ മൂന്നുമാണ് പ്രദേശത്തെ ഒരു പ്രശസ്തമായ സ്കൂളുകൾ സിഎംഡി വിഎച്ച്എസ് മാത്തൂർ വെച്ച് നോക്കുമ്പോൾ എട്ടു മുതൽ പ്ലസ് ടു വരെയാണ് അവിടെയുള്ളത് പിന്നെ അവിടുത്തെ പഠിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന പോലെ പഠിപ്പിക്കും നല്ല കു പുറകോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത അവർക്ക് വേണ്ട കെയർ കൊടുത്ത് നല്ല രീതിക്ക് പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പഠനത്തിന്റെ കാര്യത്തിൽ ഞാൻ സിഎംഡി സ്കൂളിനെ മുന്നിൽ വയ്ക്കും അതുപോലെ സരിഗ പബ്ലിക്ക് സ്കൂൾ എല്ലാം നല്ല പഠന രീതിയാണ് എയുപിഎസ് ചെങ്ങന്നൂരും പഠനത്തിൽ ഫ്രണ്ടിൽ തന്നെയാണ് എന്നാലും ഹൈസ്കൂൾ തലത്തിൽ നമ്മളുടെ രീതിക്ക് മുന്നിൽ നിൽക്കുന്നത് സിഎംഡിയാ സിഎംഡി വിഎച്ച്എസ് മാത്തൂറാണ് പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ കായിക കായികത്തിന്റെ കാര്യത്തിലും സ്കൂൾ മുന്നിൽ തന്നെ ആണ് പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് സി എം ഡി വി എച്ച്എസ് കായിക മേഖലകളിൽ എല്ലാം അതിന്റെതായിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്കൂളാണ് സി എം ഡി വി എച്ച് എസ് മാത്തൂർ സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരത്തോട് പൂർണ്ണ തൃപ്തനാണ് ഞാൻ വലിയ നഗരങ്ങളെ വെച്ചിട്ട് സ്വന്തം ഗ്രാമത്തിൽ കുട്ടികൾക്ക് മികച്ച രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പിന്നെ അതുപോലെ തന്നെ ഇപ്പോളെല്ലാം ഹൈടെക്ക് ക്ലാസ് മുറികളും ഹൈടെക്ക് പഠന രീതികളും ആയിക്കൊണ്ടു വന്നിരിക്കുന്നു അതുകൊണ്ട് നല്ല സ്കൂളാണ് പുറത്തെ സ്കൂള് വച്ച് നോ പുറത്തെ സ്കൂളുകളെ വെച്ച് നോക്കുമ്പോൾ ഗ്രാമത്തിലെ സ്കൂളുകളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്